നമ്മുടെ ഗ്രാമത്തിലെ മക്കളൊക്കെ കളിക്കുന്നത് ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും പിന്നെ കല്ല് കളിക്കും പിന്നെ ആ ഇതൊക്കെയാണ് ആൺകുട്ടികൾ ഒക്കെ കൂടി ക്രിക്കറ്റ് കളിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് പിന്നെ ഫുട്ബോള് കളിക്കും കബഡി കളിക്കും ഇതൊക്കെയാണ് ആൺകുട്ടികൾ കളിക്കുന്നത് പെൺകുട്ടികള് അമ്മയും കുട്ടിയും കളിക്കും പിന്നെ ആ കക്ക് കളിക്കും പിന്നെ റൗണ്ട് വരച്ചിട്ട് കര കുളം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് പണ്ടുതൊട്ടേ കാണുന്ന ഇപ്പഴത്തെ മക്കളൊന്നും കളിക്കില്ല പക്ഷേ അതായത് സിറ്റിയിലെ പിള്ളേർക്ക് കളിക്കാൻ വേറെ കളികളൊക്കെ ഉണ്ട് പക്ഷേ ഗ്രാമങ്ങൾ ഇപ്പോഴും ഒത്തിരി ഗ്രാമങ്ങൾ ഉണ്ട് അവിടെയുള്ള കുഞ്ഞുകുഞ്ഞു മക്കള് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയും അല്ലേല് സ്കൂൾ വിട്ടു കഴിഞ്ഞിട്ട് മക്കളൊക്കെ ഒരുമിച്ച് ചേർന്ന് കുറച്ച്നേരം കളിക്കും ഒരാറുമണി വരെ അത് കഴിഞ്ഞിട്ടാണ് അവര് വീട്ടിലോട്ട് പോകുക അവരുടെ കായിക ബലവും കൂടും പിന്നെ ഒരു എനർജി യുമായിരിക്കും അവർക്ക് ആ എല്ലാവരും കൂടെ ഒത്തിരിക്കുന്ന ഒരു സമയമാണല്ലോ അങ്ങനെ കൂടുതലും ക്രിക്കറ്റ് കളികളായിരിക്കും നല്ല രസമായിരിക്കും മക്കളെ കാണാൻ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെടുത്ത് നിന്നിട്ട് കളിക്കുന്നത് അതും നല്ല നല്ല ബാറ്റൊന്നും ആയിരിക്കില്ല ഇ തെങ്ങിൻറെ മടലുവെച്ച് ബാറ്റൊക്കെ ഉണ്ടാക്കിട്ടായിരിക്കും അവര് കളിക്കുന്നത് അതൊരു ഇനി ഇനിയുള്ള കാലം അത് ഉണ്ടാകുവോ എന്നറിയില്ല പക്ഷേ ഇപ്പഴും അങ്ങനൊക്കെ കളിക്കുന്ന മക്കളും ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷമുണ്ട്